ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് നല്ല കാര്യമാണ് ഫേസ്ബുക്ക് ഒരു നിലക്ക് നോക്കാണെങ്കിൽ എൻ്റെ ദൂരെയുള്ള ബന്ധുക്കളുമായിട്ട് കാണാനും കേൾക്കാനും അവരുമായിട്ട് സംസാരിക്കാനും അവർ അവരുടെ അവരിടുന്ന നല്ല നല്ല ക റീൽസ് അതൊക്കെ ഞാൻ കണ്ട് സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ പു ചെറുതിലെ പഠിച്ച് പോയ കൂട്ടുകാർ വരെ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയാണ് ബന്ധപ്പെടുന്നത് അതക്കെ നല്ല കാര്യവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യങ്ങളക്കെ അറിയണത് പക്ഷേ ഈ ഫേസ്ബുക്ക് കൊണ്ട് ചില ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളുവുണ്ട് ക ദോഷങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറെ പരസ്യങ്ങൾ ചീത്ത പരസ്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൻ്റെ പേരിൽ ഇട്ട് തരുന്നുണ്ട് അതും ചെറിയ കുട്ടികൾ വരെ കാണാൻ ഇടയാവുന്ന പോസ്റ്റുകളകെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലക്കെ എനിക്ക് ഫേസ്ബുക്കിനോട് ഒരു എതിർപ്പ് തോന്നാറുണ്ട് പിന്നെ നല്ലതെന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മോൾടെ കല്യാണത്തിന് മാട്രിമോണീലൊക്കെ കാണണതും കേൾക്കണതുവൊക്കെ ഈ ഫേസ്ബുക്ക് വഴി എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റീട്ടുണ്ട്